എനിക്ക് അയ്ക്ക് ചെയ്യാന് ഏറ്റവും കൂടുതലിഷ്ടമുള്ള സ്ഥലം സ്ഥലങ്ങളൊക്കെയാണ് മലകളും കാടുകള് ബീച്ചുകളും ഒക്കെ മഞ്ഞ്മൂടിയടുത്തൊക്കെ പോകാണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇമ്മള് ഇന്ത്യയിലിപ്പോള് ഹിമാലയത്തിലും ഈ ഭാഗത്തൊക്കെയേ ഉള്ളൂ സ്ഥലങ്ങള് അപ്പോള് ആ കാലത്തിലുള്ള മഴക്കാടുകളിലും സൈലന്റ് വാലി അങ്ങനത്തെയൊക്കെ പോയിനു പിന്നെ ബീച്ചിലുള്ള സൂര്യാസ്തമനം കാണാനുള്ള ഇടയ്ക്കിടക്ക് അടുത്തുള്ള കോഴിക്കോട് ബീച്ചില് പോകലുണ്ട് ഒറ്റയ്ക്ക് ആ സൂര്യാസ്തമനം കാണാനും അതുപിന്നതേപോലെ വന്നിട്ടുണ്ടെ അപ്പോള് ഞാനും കാറ്റൊക്കെ കൊള്ളാന് പോവുക ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് ബീച്ചിലൊക്കെ പോകലുണ്ട്